ആ പറയൂ ആ ഇവിടെ ഹോസ്പിറ്റലിൽ ഉള്ളത് രണ്ട് പ്രൈവറ്റിൽ കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട് അതിൽ ഏറ്റവും നല്ലതായിട്ട് അപ്പം ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് മൈത്ര ഹോസ്പിറ്റലിൽ ആണ് മൈത്ര ഹോസ്പിറ്റലിൽ ഒര് ജിജോ ചെറിയാൻന്ന് പറഞ്ഞിറ്റൊരു ഡോക്ടർ ഉണ്ട് അയാൾ നല്ലൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ് അപ്പം അയാളെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് കഴിഞ്ഞാൽ അയാൾ ചിലപ്പം കുറച്ച് കാര്യങ്ങളെ എടുക്കൂ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ പറയും അപ്പം അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് എത്രത്തോളം ഉണ്ട് അങ്ങനെ ഒക്കെ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ ഒക്കെ ചെയ്യാൻ ഉണ്ടാവും അപ്പം അതും ഒന്ന് കണ്ട് കഴിഞ്ഞാൽ ആ കാലിക്കറ്റ് കാലിക്കറ്റ് കാരപ്പറമ്പ്ന്ന് കാരപ്പറമ്പ് ജംഗ്ഷൻന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മൈത്ര ഹോസ്പിറ്റൽ കാണും അതൊരു സിക്സ് സിക്സ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോസ്പിറ്റൽ ആണ് അതിന് അനുസരിച്ചിട്ടുള്ള കുറച്ച് പായ് അതൊക്കെ പിന്നെ എക്സ്പെൻസീവ് ചെറുതായിട്ട് വരും പക്ഷേ നല്ല ഡോക്ടേഴ്സ് ആണെന്നാണ് ഇതുവരെ ഉള്ള ഓരോരോ ഫീഡ്ബാക്ക്സ് പേഷ്യൻസിൻ്റ ഓക്കെ ഞാൻ പറഞ്ഞരാം അത് ഞാൻ ചെയ്ത് തരാം അവിടെ ഉള്ള ഡോക്ടറിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെത്തരാം അവർ എല്ലാ വീക്കിലും എല്ലാ ഡേയ്സിലും അവൈലബിൾ അല്ല ചില ദിവസങ്ങളിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ അപ്പം ഏതൊക്കെ ഡേയ്സിലാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞരാം അതിന് അനുസരിച്ച് പോയി കാണിച്ചാൽ മതി ഓക്കെ ഓക്കെ താങ്ക് യൂ